എന്നെ സ്വാധീനിച്ച മത നേതാക്കൾ ഒരു വ്യക്തിയുണ്ട് ഒരു ക്രിസ്ത്യാനി ക്രൈസ്തവൻ എന്ന നിലയിൽ ഞാൻ വളരെയേറെ അഭിമാനം കൊള്ളുന്നൊരു വ്യക്തിയും കൂടിയാണ് മറ്റു സംഘടന മറ്റു മതങ്ങളെ വെച്ചു നോക്കിയാൽ സംഘടനകൾ കൂടുതലുള്ള ഒരു മതവും കൂടിയാണ് ക്രിസ്ത്യാനികൾ ക്രൈസ്തവ സമൂഹം എന്നെനിക്ക് പലപ്പോഴായി തോന്നിയിട്ടുണ്ട് ഇപ്പം സണ്ടെ സ്കൂളിലെ കുട്ടികൾക്ക് സണ്ടെ സ്കൂളുകൾക്ക് അപ്പം അവർക്ക് അവരുടേതായ സംഘടനയുണ്ട് യുവജനങ്ങൾക്കു വേണ്ടിയിട്ട് മാതാപിതാക്കൾക്കു വേണ്ടിയിട്ട് അങ്ങനെ ഒ പല ഓരോ ക്യാറ്റഗറിയിൽപ്പെട്ടവർക്കും ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കും വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ട് സംഘടനകൾ ഉള്ളതായിട്ട് എനിക്കറിയാം ഞാൻ സംഘടനയുടെ യുവജന സംഘടനയുടെയും കുട്ടികളുടെ സംഘടനകയുടെ ഒരു നേതാവ് അല്ലെങ്കിലൊരു ഭാരവാഹിയായി ഇരുന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു സംഘടനകളുടെയും തലപ്പത്തുകളിൽ അല്ലെങ്കിൽ തലകളിരിക്കുന്ന ആളുകൾ ആളുകളായിട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ ആ ഒരു സംഘടനയോടുള്ള അതിനോടുള്ള അവരുടെ ആത്മാർത്ഥമായ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെക്കാണുമ്പോൾ സ്വാഭാവികമായും വളരെയേറെ സന്തോഷം തോന്നിയിട്ടുണ്ട് വളരെയേറെ അഭിമാനം തോന്നിയിട്ടുണ്ട് അവരുടത്രയും എനിക്കെത്താൻ സാധിക്കുമൊ സാധിച്ചിട്ടുണ്ടൊ എന്നു ചോദിച്ചാലെനിക്കറിയില്ല പക്ഷെ എന്ന് എന്നിരുന്നാൽപ്പോലും എൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ ആ സംഘടനയ്ക്കു വേണ്ടിയിട്ട് സേവനം ചെയ്യുവാൻ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുവാനായിട്ട് സഹായിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നു പറയാൻ എനിക്കഭിമാനവെ ഉള്ളു വളരെ സന്തോഷമെ ഉള്ളു നമ്മുടെ മരിച്ചു പോയ ഉമ്മൻചാണ്ടി അദ്ദേഹം ഒരു ഒരു ക്രിസ്ത്യാനിയാണ് അതോടൊപ്പം തന്നെ ഒരു പാർട്ടിയിൽ വളരെ വലിയൊരു ഒരു സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ് വർഷങ്ങളോളം പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം മറ്റുള്ള വ്യക്തികളോട് അത് ഏതു മതസ്തരാകട്ടെ എങ്ങനത്തെ വ്യക്തിയുമാകട്ടെ അവരോട് കൂടെ നിന്നു പ്രവർത്തിച്ചിന് അവരോട് ചെയ്ത അവർക്ക് ചെയ്തുകൊടുത്ത കാര്യങ്ങൾ അവരോട് സംസാരിച്ച രീതികൾ എല്ലാം വെച്ചു നോക്ക് വെച്ചു നോക്കിയാൽ വളരെ വളരെ നല്ല കാര്യങ്ങളദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്കൊ അ അതിന് അതുകൊണ്ടു തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മരണ സമയത്ത് എവിടെ നിന്നൊക്കെയാണ് എത്ര വ്യക്തികളാണ് എത്തിച്ചേർന്നത് പാർട്ടിയുടെ രീതിയിലാകട്ടെ അഭിനയത്തിന്റെ രീതികളാകട്ടെ മറ്റ് ഏത് തലങ്ങളെടുത്താലും ധാരാളം വ്യക്തികൾ കേരളത്തിൽ അങ്ങ് തൊട്ട് ഇങ്ങു വരെയുള്ള സാധിക്കുന്ന എല്ലാ വ്യക്തികളും അദ്ദേഹത്തിന്റെ ആ ഒരു മൃതശരീരം കാണാനായിട്ടവിടെ എത്തിച്ചേർന്നിരുന്നു അതൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഞാനും കണ്ടൊരു വ്യക്തിയാണ് ഇന്നും ഇരു അത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒന്നാം ചരമ വാർഷികം ആചരിച്ചു ഈ ഒരു വർഷത്തിനുള്ളിൽ ഇന്നും അദ്ദേഹത്തിന്റെ കല്ലറയിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന് പൂക്കൾ സമർപ്പിക്കാനാകട്ടെ പ്രാർത്ഥിക്കാനാകട്ടെ എത്രയൊ വ്യക്തികൾ അതും ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാ മതത്തിലെയും വ്യക്തികൾ ഇന്നും ചെല്ലുന്നുണ്ട് ഇന്ന് കാണുമ്പോൾ എനിക്ക് വളരെയേറെ ബഹുമാനം ആ വ്യക്തിയോട് വ്യക്തിത്വത്തോടിപ്പോഴും തോന്നുന്നുണ്ട് നേരിട്ട് കാണാനൊ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാനൊ അല്ലെങ്കി അങ്ങതെ അങ്ങനായ ഒരു രീതികളും എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽപ്പോലും എന്നും ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിലൊരു മത നേതാവാണ് ഉമ്മൻചാണ്ടി എന്നു ഞാൻ പറയും അദ്ദേഹത്തിന്റെ

സുഹൃത്തുക്കൾ വഴിയും ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ എന്നെ വളരെയേറെ സ്വാതീസി സ്വാധീനിച്ചിട്ടുണ്ട് എന്നു തന്നെ വേണം പറയാം അദ്ദേഹത്തിന്റെ ആ ഒരു ചിരി അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഏതു മനുഷ്യരെ കണ്ടാലും പോ എന്നു പറയുക അവരെ മടുപ്പിക്കുകയോ ചെയ്യുന്ന ഒന്നും ചെയ്യാതെ അവരെ ക ഒരു വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിയുന്ന ആ ഒരു ചിരി അത് തന്നെയാണ് ഏറ്റവും എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് അതിനാൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു മത നേതാവ് ആരാണ് എന്നു ചോദിച്ചാൽ ഉമ്മൻചാണ്ടി തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് മറ്റുള്ളവർക്ക് അധികം ചെയ്യുന്ന സേവനങ്ങളാണ് അത് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവരിലേക്ക് എന്നാൽ കഴിയുന്ന വിധത്തിലെത്തിക്കാനായിട്ടും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്